ഒരു വർഷത്തിൽ പല പല കാലവർഷങ്ങളിൽ നമ്മുടെ പ്രദേശത്ത് വളരുന്ന വിളങ്ങള് വിളകൾ എന്ന് പറയുമ്പോൾ മാങ്ങ ഉദാഹരണത്തിന് പറയുകയാണ് മാങ്ങ മാങ്ങ ഉണ്ടാവുന്ന ഒരു സമയം ഉണ്ട് ആ സമയത്ത് മാത്രമേ നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങ കാണാൻ കിട്ടുകയുള്ളു അത് അല്ലെങ്കിൽ പിന്നെ മാങ്ങ കിട്ടുന്നതാകുന്ന അല്ലെങ്കിൽ മാങ്ങ ഉണ്ടാകുന്നത് ആകുന്ന മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ ഉണ്ട് മാങ്ങയുടെ കാര്യത്തിൽ മാത്രമല്ല അങ്ങനെ പല പല വസ്തുക്കൾ ഉണ്ട് മാങ്ങ ആയാലും അത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഉള്ള വേറെ വസ്തുക്കൾ ആയാലും പക്ഷെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിന് അതിന് നിന്ന് ഉണ്ടാകേണ്ടത് ആകുന്ന ചില സ്ഥലങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പം ഈത്തപ്പഴം എടുക്കുമ്പോൾ

ഇത് ഗൾഫ് രാജ്യങ്ങൾ പോലെയുള്ള നല്ല ചൂടുള്ള പ്രദേശങ്ങളിലാണ് ഈത്തപ്പഴം പോലെയുള്ള വസ്തുക്കളൊക്കെ സാധാരണ ഉണ്ടാവുക

പഴത്തിന് അങ്ങനെ ഇന്ന കാലം എന്നൊന്നും ഇല്ല നമ്മൾ എങ്ങനെയാണോ അതിനെ പരിപാലിക്കുന്നത് അതിന് നമ്മൾ എങ്ങനെയാണ് അതിനെ വളർത്തുന്നത് അതിന് അനുസരിച്ചായിരിക്കും അത് നമുക്ക് കായ്കൾ തരിക

അതിൻ്റെ ഒരു അവസ്ഥ പിന്നെ നമ്മുടെ നാട്ടിൽ എല്ലാ സമയത്തും ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ

ഫുൾ ടൈം നമ്മൾ അതിനെ പരിപാലിച്ച് കൊണ്ട് വരുമ്പോൾ കൃഷികൾക്ക് നല്ല അനുയോജ്യമായ സ്ഥലത്ത് നമ്മൾ കൊണ്ടു പോയിട്ട് അതിനെ നട്ട് നനച്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നന്നായി

അതുപോലെ ഒരുപാട് ഒരുപാട് വേറെ വസ്തുക്കളുണ്ട് ഇപ്പോൾ പച്ചക്കറികളായാലും വെണ്ടയ്ക്ക അത് അല്ലെങ്കിൽ തക്കാളി പച്ചമുളക് ഉള്ളി ചെറിയ ഉള്ളി അങ്ങനെ പല പല ഐറ്റംസുകൾ ആ ഐറ്റംസുകൾക്കൊക്കെ

ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുകയില്ല അത് ഉണ്ടാകണം എങ്കിൽ അത് അത് വളരുന്നതാകുന്ന ചില സ്ഥലങ്ങൾ ആ സ്ഥലത്ത് മാത്രം കൊണ്ടു പോയിട്ട് ഉണ്ടാക്കിയാലേ നമുക്ക് അതിൻ്റെ വിള ലഭിക്കുക ഉള്ളു എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഓക്കെ താങ്ക്യൂ